ഈ കോവിഡ് കാലത്ത് ഒരുപാട് രീതിയില് ഫോണ് എന്താണു പറയുക മൊബൈൽ ഫോണ് കുട്ടികളെ പഠനത്തിന് സഹായിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസുകളായിട്ടും ഒരുപാട് കാര്യങ്ങളെന്താണു പറയുക കുട്ടികൾക്ക് ക്ലാസില് പോകാൻ കഴിയാതെ പറ്റെ കുടുങ്ങി നില്ക്കുന്നൊരു ടൈമിൽ ഇവരെ എന്താണു പറയുക സ്റ്റഡീസൊക്കെ അവിടെ നില്ക്കുന്നൊള്ളൊരു ടൈമില് നമ്മള് ഫോണുകളില് കാരണം ഇവർക്ക് പഠനം മുടങ്ങാതെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അത് കുറച്ച് ടൈമെടുത്തു തുടങ്ങാന് എന്നുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു ബ്ലോക്കാവാത്ത രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്താണു പറയുക സൂം മീറ്റിങ്ങായിട്ടും സൂമിലായിട്ടും ഗൂഗിൾ ൻ്റെ സൂമായിട്ടും അങ്ങനെ ലൈവ് കാര്യങ്ങളിലൊക്കെ ഓൺലൈൻ എന്താണു പറയുക മൊബൈൽ ഫോണ് കുട്ടികളെ പഠിക്കാൻ സഹായിച്ചു അതേപോലെ വാട്ട്സ് ആപ്പ് ഗ്രൂപ്പുകള് ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ ടീച്ചേഴ്സൊക്കെ സെൻറ്റ് ചെയ്തിട്ടും അതൊരു ബ്ലോക്കാകാത്ത രീതിയില് കുട്ടികളെ മുന്നോട്ടു കൊണ്ടുപോവാൻ സാധിച്ചു അതോടുകൂടി കുട്ടികള് കൂടുതലും ഫോണുകളിലേക്ക് അഡിക്റ്റായി മാറുകയും ചെയ്തു കുട്ടികൾ കൂടുതലും ഫോണുകളുടെ അഡിക്റ്റായി വീട്ടില് എന്താണു പറയുക ഫോൺ വല്ലാതെ ഉപയോഗിക്കാൻ കൊടുക്കില്ലെന്നു പറഞ്ഞ പേരൻറ്റ്സിന് വരെ ഫോണ് കുട്ടികളുടെ കയ്യില് കൊടുക്കല് നിർബന്ധമായി അതും ഈ പഠിക്കുന്ന കുട്ടികള് നല്ലവണ്ണം പഠിച്ച് മുന്നേറുകയും ചെയ്തു പക്ഷേ കുറച്ചൊരു ഉഡായിപ്പുള്ളവര് കൂടുതൽ ഉഡായിപ്പായി മാറുകയും ചെയ്തു നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കില് അതോടു കൂടി ഒരുപാട് ദോഷങ്ങളെന്നു പറഞ്ഞാല് ഒരുപാട് ദോഷങ്ങളായി വന്നിട്ടുണ്ട് കുട്ടികളെ എന്താണു പറയുക മൊബൈൽ ഫോണിലേക്ക് അങ്ങോട്ട് കൂടുതൽ ആകർഷിച്ചതോടുകൂടി കുട്ടികള് പഠനമെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലില് ഗെയിം കളിക്കാറ് ഗെയിം കളിക്കലും അങ്ങനെ പിന്നെ ബാഡായിട്ടുള്ള കൂട്ടുകെട്ടുകള് ക്രീയേറ്റ് ആക്കാനും കുട്ടികളങ്ങനെ പല സിനിമ കണ്ടിരിക്കുക പഠനം പഠിക്കേണ്ട സമയത്ത് കേട്ടോ പഠിക്കുന്ന കാര്യങ്ങളിലല്ലാതെ ഇതൊക്കെ കുഴപ്പമില്ലാതായി സിനിമയൊന്ന് കാണുന്നതിന് കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേ പഠിക്കേണ്ട സമയത്ത് കുട്ടികള് പല ആക്ടിവിറ്റീസായിട്ട് അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പാരെൻറ്റ്സ് ഒഴിഞ്ഞ മുറിലായിരിക്കുമല്ലോ പഠിക്കാനൊക്കെ ബഹളമില്ലെന്നു പറഞ്ഞ് പോയിട്ട് പിന്നെ ഇത് ഇവര് ശരിക്കും നോക്കാതെ എന്താണു പറയുക കുറച്ച് പിന്നോക്കം നില്ക്കുന്നവര് കൂടുതല് പിന്നോട്ടായി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് പഠിച്ച് മുന്നേറുകയും ചെയ്തു